നമ്മുടെ നാട്ടിൽ അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ തൊഴിലും മേഖലയിലെല്ലാം സജീവമാണ് പക്ഷേ നമ്മുടെ ഇവിടെ അഥിതിത്തൊഴിലാളികൾ കണ്ടമാനം വന്ന് അവർ ഇവിടെ ജോലി എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഭാഗത്തെ ആൾക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റാത്തതും വേറെ അവർ ചെയ്യാൻ വരും മടി കാരണമാണ് അഥിതിത്തൊഴിലാളികൾ ആ വർക്കുകളൊക്കെ ചെയ്തു പോണതും പിന്നെ ഈ സർക്കാര് മേഖലയിൽ തന്നെ ഈ പഠിച്ചിറങ്ങിയ വിദ്യാർഥികൾക്കോ അതേപോലെ പി എസ് സി എഴുതിയ കിട്ടുമെന്നുറപ്പുള്ളവർക്കൊ കൊടുക്കൊന്നുമില്ല അതുപോലെ തന്നെ പാർട്ടി ബേസിൽ കേന്ദ്രീകരിച്ചാണ് പല ജോലികളും ആ ആ വഴിക്ക് പോണത് പിന്നെ എന്തു പറയാമെന്നു വച്ചാൽ ഒന്നാമത്തെ തൊഴിൽ ചെയ്യാൻ ചിലവർക്ക് ചില മേഖലയിൽ മടി ഉണ്ട് ആ മടി വിചാരിച്ചതു കൊണ്ടാണ് അഥിതി തൊഴിലാളികൾ ഇവിടെ വന്ന് ആ പണികളൊക്കെ ഏറ്റെടുത്ത് ഇപ്പം അവര് മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കുറേ നമ്മള് ഈ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിയ പണികളാണ് ഇവിടെയുള്ളത്